രണ്ട് രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മൂന്ന് നാല് രണ്ടായിരത്തി നാല് ഇരുവത്താറ് മൂന്ന് രണ്ടായിരത്തി അഞ്ച് അഞ്ച് മൂന്ന് രണ്ടായിരത്തി പത്ത് നാല് നാല് രണ്ടായിരത്തി ഒന്ന്